ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് നേഴ്സിംഗ് കോഴ്സാണ് ഏറ്റവും കൂടുതൽ പിന്നെ ബികോം എടുത്ത് പോകുന്നവരുണ്ട് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോകുന്നവരുണ്ട് ഏതൊരു പ്രദേശത്ത് ചെന്നാലും ജോലി ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കോഴ്സായിട്ടാണ് കുഞ്ഞുങ്ങള് അത് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനും സ്വന്തം പ്രദേശത്ത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യാനുമുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതലായി കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നത് സാമ്പത്തികം കുറവാണെങ്കിൽപ്പോലും കുട്ടികളെ മാതാപിതാക്കള് ഏറ്റവും സാമ്പത്തികം മുടക്കി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ബികോം എടുത്ത് പോകുന്നവരുമുണ്ട് എന്നാലും സാമ്പത്തികം കുറവാണെങ്കിലും ഇപ്പം നേഴ്സിങ്ങിനാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കള് കുട്ടികളെ തെരഞ്ഞെടുത്ത് വിടുന്നത് പിന്നെ സയൻസ് ഗ്രൂപ്പിൽ അല്ല ഇത് നേഴ്സിംഗാണ് അതായത് ഇനി കുറച്ചുകാലം അവർക്ക് ഇടവേളയെടുത്താലും ഏതെങ്കിലുമൊരു ഹോസ്പിറ്റലിലൊക്കെയാണെങ്കിലും ചെറിയ ചെറിയ ജോലികൾക്ക് കയറി അവിടെയൊരു സാമ്പത്തികം കണ്ടെത്താമെന്നുള്ളൊരു നിലപാടിലാണ് നേഴ്സിങ് പഠിക്കുന്നത് കുട്ടികൾക്ക് നേഴ്സിങ് പഠിക്കുന്നതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നൂറിലൊരു അറുപത്തിയഞ്ച് ശതമാനം കുട്ടികളും ഈ നേഴ്സിങ്ങിലേക്കാണ് പോകുന്നത് മറ്റ് കോഴ്സുകളെടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതാണോ എന്തോ അതാണ് തെരഞ്ഞെടുക്കുന്നത് കുട്ടികളിപ്പോൾ മാതാപിതാക്കൾക്കും അതാണ് ഇഷ്ടം കാരണം വിദേശത്തൊക്കെയാണെങ്കിലും പോയി നല്ല സാമ്പത്തികങ്ങൾ നേടിയെടുക്കാം അതുപോലെ തന്നെ കുട്ടികളൊക്കെയായി കുടുംബമായിക്കഴിഞ്ഞാലും ഒരു ഇടവേള കഴിഞ്ഞാലും ആ ഒരു തൊഴിലിനെ അവര് മറക്കാതെ മുന്നോട്ടുപോകും എന്നാണ് എല്ലാ മാതാപിതാക്കളും കരുതുന്നത് അതുകൊണ്ട് അവര് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പ്രദേശത്ത് തെരഞ്ഞെടുക്കുന്നൊരു കോഴ്സ് നേഴ്സിംഗായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ അക്കൗണ്ടൻസിയൊക്കെ എടുക്കുന്ന കുട്ടികളുണ്ട് ബാങ്കിലൊക്കെ ജോലി യ്ക്കായി കടന്നുപോകുന്നവരുണ്ട് സർക്കാര് സ്ഥാപനങ്ങളിൽ പോയി ജോലി ഇപ്പോള് നേടിയെടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ സാമ്പത്തികം വേണം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും സാമ്പത്തികഞെരുക്കം ആദ്യകാലങ്ങളിലുണ്ടായാലും പിന്നീട് വലിയ സാമ്പത്തികം അടയ്ക്കാതെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് ഈ നേഴ്സിംഗ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സ്